ഹലോ ടൈലർ ഷോപ്പല്ലേ ആ ഞാനൊരു രണ്ടാഴ്ച മുൻപ് ഒരു യൂണിഫോം തയ്ക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെന്തായി സ്റ്റിച്ചിങ് ചെയ്തു കഴിഞ്ഞായിരുന്നോ അത്

എൻ്റെ പേര് ദിവ്യ ഒരാൺകുട്ടിയുടെ യൂണിഫോമാണ് മോൻ്റെ യൂണിഫോമാണ് തന്നിരുന്നത് മോൻ്റെ പേര് അക്ഷയ് എന്നാണ് അക്ഷയ് എന്നാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ് ഒര് ആഷ് കളർ യൂണിഫോമാണ് ആഷും പിങ്കും കൂടെയുള്ളത് അയ്യോ എന്താത് അത്യാവശ്യം ആയിരുന്നു അതത്

അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായതുകൊണ്ടല്ലേ തന്നതിപ്പോൾ ആ ഓക്കെ അത് മനസിലാകും ആ കണ്ടിഷൻ മനസിലാകും പക്ഷെ കുഞ്ഞിന് ഫങ്ക്ഷനായിരുന്നു സ്കൂളില് അപ്പോൾ ഒരു പുതിയ യൂണിഫോം അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് അപ്പോൾ അതാണ് ഇടാൻ ഇട്ടോണ്ടു പോകാനുള്ളത് സ്കൂൾ ആനിവേഴ്സറിക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്

ആണോ എനിക്ക് നെക്സ്റ്റ് മൺ എനിക്ക് നെക്സ്റ്റ് മൺണ്ടേയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഒരു മൂന്നാലു ദിവസമുണ്ട് അപ്പത്തേക്ക് റെഡിയാക്കാൻ പറ്റുവോ അത് ആ ആ അത് ശ്രദ്ധിക്കണം മാത്രം സേവ് ചെയ്യാതെ ഡയറിയിൽ വല്ലോം എഴുതിവെക്കാരുന്നെങ്കില് ഈയൊരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നല്ലോ ഇത് മ് മ്

ആ ആ മ് ആ ആ എന്തായാലും ഇപ്പോൾ റെസ്റ്റ് എടുക്ക് നിങ്ങള് അപ്പോൾ ഞാൻ അഡ്വാൻസ് ചെയ്താരുന്നല്ലോ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ അതോ ആ അപ്പോൾ ലൈനിങ്ങിൽ അത് കുറച്ചാൽ മതി ആ

ആ അപ്പോൾ എന്തായാലും എങ്കിൽ ഇനിയിപ്പം നെക്സ്റ്റ് ഞാന് സൺഡേ എത്താം മണ്ടേയാണ് പ്രോഗ്രാം അപ്പോൾ സൺഡേ എന്തായാലും കിട്ടിയേ പറ്റത്തുള്ളൂ ഇനി ഒരു പ്രശ്നമാവരുത് ഉറപ്പായിട്ടും കിട്ടിയേ പറ്റത്തുള്ളൂ അത് ആ ഓക്കെ എന്നാൽ അസുഖമെല്ലാം പെട്ടെന്ന് ഭേദമാകട്ടെ മ് അപ്പോൾ നെക്സ്റ്റ് അടുത്ത തവണ എന്തായാലും കൊണ്ടു വരാം മ് ഓക്കെ ഓക്കെ ശരി ശരി മ്